ഹലോ കൗസല്യ ഫ്ലവർ ഷോപ്പല്ലേ ആ ഞാൻ നമ്മുടെ ധീരജ സ്ട്രീറ്റിലെ നമ്മുടെ ഫ്ലാറ്റില്ലേ അവിടത്തെ ഫ്ലാറ്റ് നമ്പർ ഫൈവ് അവിടത്തെ റസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡൻറ്റായിരുന്നേ എനിക്കൊരു ഓഡറുണ്ടായിരുന്നു ആ അതായത് ഞങ്ങളുടെ ഇവിടെ റസിഡൻറ്റ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോള് അതിനായിട്ട് ഞങ്ങള്ക്ക് കുറേ മുല്ലപ്പൂക്കളും കുറേ റോസാപ്പൂക്കളും വേണമായിരുന്നു പലതരം അപ്പോള് അതിൻ്റെ റേയ്റ്റൊക്കെ ഒന്നറിയാനായിരുന്നേ ആ നിങ്ങളുടെ കടയില് ഏതൊക്കെ കളര് അവൈലബിളായിരിക്കും ഓ വൈറ്റ് റോസൂണ്ട് ഓക്കേ ഓക്കേ ആ ഞങ്ങള്ക്ക് റെഡ് വേണം റെഡ് പിങ്ക് പിന്നെ ബ്ലൂ ഛെ ബ്ലൂ അല്ലല്ലോ ആ ബ്ലൂ നമ്മള് ഡൈ ചെയ്തിട്ട് വൈറ്റ് റോസ് ഡൈ ചെയ്തിട്ട് നിങ്ങള്ക്ക് കിട്ടില്ലേ ആ യെസ് റെഡ് പിങ്ക് മഞ്ഞ പിന്നെ ബ്ലൂ അതായത് വെള്ള റോസ് ഡൈ ചെയ്ത് മഞ്ഞ എന്താണ് ബ്ലൂ ആക്കിയിട്ടുള്ളത് അതും ഓരോ കിലോ വീതം വേണം പിന്നെ വെള്ള റോസ് മാത്രം രണ്ട് കിലോ വേണം പിന്നെ ഞങ്ങള്ക്ക് മുല്ലപ്പൂവിൻ്റെ കെട്ട് ഒരു വലിയ ഫംഗ്ഷനായോണ്ടേ വലിയ ഫംഗ്ഷനായോണ്ട് ഞങ്ങള്ക്ക് ഒരു ഇരുപത് കിലോ വേണ്ടി വരും അപ്പോള് മുല്ലപ്പൂവിൻ്റെ പെർ കിലോ റേറ്റ് എത്രയായിരിക്കും ഫൈവ് ഹണ്ട്രഡല്ലേ അപ്പോള് ഒരു ട്വൻറ്റി കിലോസാവുമ്പോള് ഒരു ടെൻ തൗസൻഡ് ഓക്കേ ടെൻ തൗസൻഡ് ഓക്കേ അത് പിന്നെയും നമുക്ക് നോക്കാവുന്നതാണ് ഒരു പതിനായിരമെന്ന് പറയുമ്പോള് പിന്നെയും നമുക്ക് കുഴപ്പമില്ലാത്തൊരു റേറ്റാണ് പിന്നെ റോസസിൻ്റെ ഓരോ കിലോ വീതം നമ്മുടെ റെഡിൻ്റെയും പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെയും പിന്നെ മഞ്ഞയുടെയും പെർ കിലോ വീതം എത്ര റേറ്റ് വരും ആ യെസ് യെസ് കൊണ്ടത്തരണം കൊണ്ടുതരണം പ്രോഗ്രാം ഓ മെല്ലെ മതി പ്രോഗ്രാമെന്നു പറയുന്നത് ഒരു മാർച്ച് ലാസ്റ്റ് അവസാന ആഴ്ചയോടു കൂടിയിട്ടൊക്കെയാണ് ആ ഒരു മാർച്ച് ഇരുപത്തിയൊന്പതൊക്കെ ആയിട്ടാണ് വരിക ആ അപ്പോള് അപ്പോഴേക്കും അവൈലബിളായിരിക്കില്ലേ ആ ഓക്കേ ഓക്കേ അപ്പോള് എനിക്ക് വെള്ള റോസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് കെട്ട് വേണം ആ പിന്നെ റെഡും പിന്നെ ചുവപ്പ് റോസും പിങ്ക് റോസും മഞ്ഞ റോസും പിന്നെ ഡൈ ചെയ്ത ബ്ലൂ റോസും എനിക്ക് ഓരോ കെട്ട് ഓരോ കെട്ടല്ല ഓരോ കിലോ വീതം വേണം അപ്പോള് അതിന്റെയൊക്കെയായിട്ട് ബില് എനിക്ക് ആ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എനിക്ക് വാട്ട്സപ്പിൽ അയച്ചുതരുമോ ആ ഓക്കേ ശരി എന്നാല്